ആ പറയ് എന്നിട്ട്

ക്ഷീണമായി അല്ലേ ചേട്ടാ എവിടുന്നാണ് വിളിക്കുന്നത് എവിടെയാണ് വീട് ചേട്ടൻ്റെ ആ കാട്ടാമല അറിയാം ചേട്ടൻ്റെ ചേട്ടൻ്റെ പേരെന്താണ് ആ മറ്റേ ആ സുരേഷേട്ടൻ്റെ അനിയൻ ആ വാർപ്പ് പണിക്ക് പോവുന്നതല്ലേ ആ അറിയാം അറിയാം ഇവിടുന്ന് തന്നെയല്ലേ അതെ ചേട്ടാ എപ്പോളാണ് എടുത്തത് ഇന്നലെയത് എത്ര കിലോ എടുത്തു ആ ആരുണ്ടായിരുന്നു അപ്പോൾ കടയിൽ ഏതാണ് ആ കണ്ണുംവീട്ടുള്ളതാ ഓ അല്ല ഇത് ഏതിൻ്റെയാണ് എടുത്തിരിക്കുന്നത് ചേട്ടൻ അവരെ കംപ്ലീറ്റ് വേറെ എനിക്കറിയില്ല ഇതെന്താണ് സംഭവമെന്ന് അറിയില്ല ചേട്ടാ ആ പൊട്ടിച്ച പാ പാക്കറ്റ് ബാക്കിയുണ്ടോ സാധനം അയ്യോ എന്നാൽ അത് കുഴപ്പമില്ല ആ പാക്കറ്റ് കിട്ടിയാൽ മതി ആ ചാക്ക് കിട്ടിയാൽ മതി അതേ ഞാനീ ഇപ്പോൾ എന്തായാലും ഇതിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ചേട്ടനെന്താണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മുടെ ഒരു കാരണം തന്നെയാണത് ചേട്ടൻ എന്തായാലും ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞാനേ ഒരു വെറ്ററിനറി ഡോക്ടറെ ഇപ്പോൾ അയച്ചുതരാം എന്നിട്ട് ആൾ പറയട്ടെ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറയട്ടെ കേസ് ഒന്നുമല്ല കേസ് കൊടുക്കാൻ വരട്ടെ ചേട്ടാ നമുക്കിതൊന്നു ആദ്യം നോക്കിനോക്കാം എന്തുകാരണം കൊണ്ടാണെന്ന് നോക്കാം ചിലപ്പോൾ ഇത് വെള്ളത്തിൻറെ പ്രശ്നം വരാം ഇല്ലെങ്കിൽ അതാണ് അതാണ് ഞാൻ എന്തായാലും ഇപ്പോളേ ഇപ്പോൾ കുറച്ച് തിരക്കാണ് ഞാനിപ്പോൾ ലോഡ് എടുക്കാനായിട്ട് പൊള്ളാച്ചിവരെ പോവാൻ നിൽക്കുവാണ് ആ അതെയതെ പൊള്ളാച്ചിയിൽ നിന്ന് നമ്മുടെ മറ്റെ മുരുഗൽപേട്ട് ഇല്ലേ അത് നിർത്തി ഞങ്ങൾ അതും ഇതേപോലെ അതും ഇതേപോലത്തെ ഒരു കംപ്ലൈൻറ് തന്നെ വന്നതായിരുന്നു പക്ഷേ അത് നമ്മൾ പിന്നെ നോക്കിയപ്പോഴായിരുന്നു പറഞ്ഞത് അവർ അവരുടെ പശുവിൻ്റെ പ്രശ്നം ആയിരുന്നെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരേണ്ട എന്നുവെച്ചിട്ടാണ് ആദ്യം തന്നെ വെറ്ററിനറി ഡോക്ടറിനെ വിളിക്കാം എന്ന് പറയുന്നത് ആ അതും ഇതേപോലെ ഒന്ന് നിർത്തിയതാണ് ഇതേപോലെ ഒരു ഇഷ്യൂ വന്നിട്ടേ അത് നമ്മൾ നിർത്തി പിന്നെയാണ് അറിയുന്നത് ഇതല്ല എന്ന് ആ ആ എന്തായാലും ഞാനൊരു ഡോക്ടറെ അയയ്ക്കാം എന്തായാലും നോക്ക് ഞാൻ കുറച്ചു തിരക്കിലാണ് ആ ഓക്കെ ആ ഞാൻ എന്തായാലും അയയ്ക്കാം ദേ ഇപ്പോൾ ഒരു പത്ത് മിനിട്ടിനുള്ളിൽ ആൾ വരും അവിടെ ശരിയപ്പോൾ ശരി